ഹലോ അശ്വതി ടീച്ചറല്ലേ ബസ്സ് ഇല്ലാത്ത സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറല്ലേ ആ ഞാൻ സെക്കൻഡ് ബിയിൽ മനുവിൻ്റെ മമ്മി ആണേ ടീച്ചറേ നാളെ മനുവിന് വരാൻ പറ്റില്ല അവന് ചെറിയ ടെംപറേച്ചർ ഉണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നെയാണ് ആ അതെ ആണോ ആ എഹ് ആ ഇല്ല മനു ഒന്നും പറഞ്ഞില്ല അവന് വയ്യായിരുന്നു വന്നപ്പോഴേ ഒന്നും പറഞ്ഞില്ല ആ ആ അതെ അതെ ആ ഇത്തിരി ടെംപറേച്ചർ കുറയുവാണെന്ന് ഉണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ വിടാം ഇപ്പോൾ മാക്സിമം നോക്കട്ടെ ക്ലാസ്സ് ഉള്ളതല്ലേ ആ ഹോസ്പിറ്റലിൽ പോയി ആ മെഡിസിൻ ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ കുറയുവാണെങ്കിൽ ഞാൻ വിടാം ആ ശരി ടീച്ചറേ പിന്നെ ടീച്ചറേ മനു എങ്ങനെ ഉണ്ട് ക്ലാസിൽ ആ കുഴപ്പം ഒന്നും ഇല്ലല്ലോ എക്സ്ട്രാ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാറോണ്ടോ ആ ശരി ടീച്ചറേ ആ ആ ആ ആ ഇവിടെ കുരുത്തക്കേടാണ് അതാ ഞാൻ ഞാൻ ചോദിക്കുന്നത് മ് ഇവിടെ കുരുത്തക്കേട് ഉണ്ട് ആ മറ്റുള്ള പിള്ളേരെ ഉപദ്രവിക്കുക അങ്ങനെ ഒന്നും ഇല്ലല്ലോ ആ ഹാ ആ ആ സ് ആദ്യം പഠിപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞാലേ പുസ്തകം എടുക്കത്തുള്ളൂ

ആ ശരി ടീച്ചറേ ആ ആ ശരി ആ എങ്കിൽ ശരി എങ്കിൽ താങ്ക്യൂ ടീച്ചർ